എനിക്ക് പ്രിയപ്പെട്ട കായിക ഇനം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസേരകളിയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നാടൻ കായിക ഇനങ്ങൾ അതൊക്കെ അല്ലേ പിന്നെ ഓട്ടമത്സരം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പണ്ടുകാലത്താണ് ഇപ്പോഴൊന്നും പങ്കെടുത്തിട്ടില്ല കസേര കളിയാണെങ്കിലും പിന്നെ ഓട്ടം ആണെങ്കിലും എല്ലാം ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് എന്താ മത്സരത്തിലൊക്കെ പങ്കെടുക്കുക കളിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് അതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറയാനൊന്നും ഇല്ല രണ്ടായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ മ്യൂസിക്കൽ ചെയർ ആകുമ്പോൾ അത് നമുക്ക് ഒരു രസമായിരിക്കും നമ്മൾ ഓട്ടോമാറ്റിക്ക് അതിനകത്ത് പങ്കെടുത്തുപോവും ഓട്ടമത്സരം ആകുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക് അതിനകത്ത് നമ്മൾ അടുത്ത് ഇടപഴകി പോകും ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ആ മത്സരം കളിക്കുകയും ചെയ്യുക അതുകൊണ്ടുതന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കായിക ഇനം എന്നു പറയുന്നത് മ്യൂസിക്കൽ ചെയറും ഓട്ടമത്സരവും ഒക്കെ തന്നെയാണ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രണ്ട് കായിക ഇനങ്ങളാണ് നാടൻ കായിക ഇനങ്ങളാണ്